ബാങ്കിനെക്കുറിച്ച് പറയുകയാണെങ്കില് നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാ തരത്തിലുള്ള വയസ്സിലെ ആൾക്കാർക്കും ബാങ്കിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇന്ന് സുലഭമായി ഇൻ്റർനെറ്റും അതുപോലെ പത്രങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് അതായത് ബാങ്കിൻ്റെ നയങ്ങളാവട്ടെ ബാങ്കിനെക്കുറിച്ചുള്ള എന്താണ് ബാങ്ക് എന്നുവച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പല തരത്തിലുള്ള വായ്പകളെടുക്കാൻ പറ്റും സ്വർണ വായ്പ അതുപോലെ നമുക്ക് കാർഷിക വായ്പ അങ്ങനെ ഒരുപാട് വായ്പകള് അറിയാൻ വേണ്ടി നമുക്ക് ബാങ്ക് വരെ പോകേണ്ട കാര്യമൊന്നുമില്ല ഇന്നെല്ലാം പത്രങ്ങളിലൂടെയും അതുപോലെ ഇൻ്റർനെറ്റിലൂടെയും എല്ലാം നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് അതുപോലെതന്നെ നമുക്ക് ഒരു ഇൻഷുറൻസിൻ്റെ കാര്യമായിക്കോട്ടെ ബാങ്കിന് നമുക്ക് ഏതൊക്കെ എക്കൗണ്ട് എടുക്കാം ബാങ്കിന് എന്തൊക്കെ എക്കൗണ്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് അതുപോലെ നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നതും അതുപോലെ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ചേരുന്നതിനുമൊക്കെ നമുക്ക് അതിൻ്റെ പലിശ നിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് പത്രങ്ങളിലൂടെയും അതുപോലെ ഇൻ്റർ ഇൻ്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങളിലൂടെ നമുക്ക് പരിചയം തന്നെയാണ് എല്ലാ വിധ ആൾക്കാർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ട് ചെയ്തു വരുന്നു